ഓൺലൈനിൽ ഞാനൊരു ഷർട്ട് ഓഡ്രെയ്തു അത് ഓൺലൈനിലതിനകത്ത് അതിനകത്തെ പരസ്യങ്ങളും കാര്യങ്ങളും കണ്ട് കഴിഞ്ഞപ്പോള് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോഴെനിക്ക് മാനസികമായിട്ടും അതിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് നിലവിൽ ഓഡ്രെയ്തത് വീട്ടില് വരുമ്പോഴാണ് അതിൻ്റെ ഡെലിവറി ടൈമിലാണ് അതിന്റെ പേമെൻറ്റെന്ന് പറയുകയും ചെയ്തതനുസരിച്ച് ഞാനതിൻ്റെ രണ്ടായിരം രൂപയുടെ ഒരു പേമെൻറ്റ് നടത്തത്തക്ക രീതിയിലുള്ളൊരു ഷർട്ട് പർച്ചേസ് ചെയ്യുകയും രണ്ട് ഞാന് രണ്ട് ഷർട്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഓഡര് കൊടുക്കുകയും ഓൺലൈൻ ബുക്കിങ് ചെയ്യുകയും അതനുസരിച്ച് എനിക്ക് കൊണ്ടുത്തരികയും ചെയ്തു നിലവിൽ ഞാൻ രണ്ടായിരം രൂപ കൊടുക്കുകയും ഓപ്പൺ ചെയ്തുകഴിഞ്ഞെന്നാൽ അത് എന്നാ അവര് തിരികെ എടുക്കേല്ലെന്ന് പറയുകയും ചെയ്തു പക്ഷെ ഏത് ഓഡ്രെയ്തെന്നെ നല്ല സാധനം എന്നുള്ള രീതിയില് മേടിച്ചു ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാ ഷർട്ട് പലയിടത്തും പൊടിഞ്ഞതും അതായത് പഴകിപ്പൊടിഞ്ഞതും ചില കളര് മങ്ങിയതും ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഉത്പന്നമാണ് എനിക്ക് ഓൺലൈനിൽക്കൂടെ കിട്ടിയത് എന്നാൽ ചില ചില ഐറ്റങ്ങള് നമ്മളോൺലൈനിൽ കൊടുക്കുമ്പോള് അതിൻ്റെ കൃത്യമായ രീതിയില്ത്തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കൃത്യമായ രീതിയില്ത്തന്നെ നമ്മള് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളനുസരിച്ചുള്ള രീതിയിലുള്ള വിപണിയിൽ നല്ല സാധനങ്ങളും അവര് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതനുസരിച്ച് നല്ല സാധനങ്ങളും നമ്മള് ഞാൻ പർച്ചേയ്സേയ്തിട്ടുണ്ട് പക്ഷെ ഇതെൻ്റനുഭ അനുഭവത്തിലൊരു ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു അനുഭവമായിപ്പോയി ഞാൻ രണ്ട് ഷർട്ട് ഓഡ്രേയ്ത് കഴിഞ്ഞിട്ട് അത് കൊള്ളുകേലാത്തൊരു സാഹചര്യത്തിലെനിക്ക് കിട്ടിയത് ഓൺലൈനിനെ കുറിച്ച് പർച്ചേസിങ്ങിനേക്കുറിച്ചെനിക്ക് അതിനകത്ത് അഭിപ്രായത്തിനകത്ത് വ്യത്യാസം എനിക്കത് മാനസിക അത് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അത് ചെയ്യണ്ടായിരുന്നു എന്നുവരെ എനിക്ക് തോന്നിപ്പോയി